എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വിവോ വൈ ട്വൽവിന്റെ ഫോണാണ് വളരെ നല്ലൊരു ഫോണാണ് നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാനൊക്കെ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളുമൊക്കെ സുഖായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ് പിന്നെ കയ്യിൽ പിടിച്ച നമുക്ക് യൂസ് ചെയ്യാൻ സിമ്പിളാണ് പെട്ടെന്ന് ഹീറ്റാവുന്നതോ ഹാങ് ആകുന്നതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല സിക്സ് ജി ബി യോളം റാമുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് വേറെ സ്ക്രീനും ഡിസ്പ്ലേയും സ്ക്രീനും ഒക്കെ വളരെ നല്ലൊരു ഇതാണ് ഇഫക്റ്റ് ആയിട്ടാണുള്ളത് പിന്നെ ക്യാമറ ആണേലും ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട് നമുക്ക് ഫോട്ടോ ക്ലാരിറ്റി വളരെയധികം നല്ല ക്ലാരിറ്റി ആണ് പിന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും നല്ല നല്ലൊരു ഫോണാണ് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്നു വിവോ വൈ ട്വൽവ് അപ്പോൾ അത് കണ്ടപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി അതിന്റെ ബാക്ക് ബാക്കിലെ കളറും കാര്യങ്ങളൊക്കെ കണ്ട് അതിന്റെ ഫംഗ്ഷൻസൊക്കെ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ് അവള് സജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നല്ല ബെറ്റർ ചോയ്സ് ആയിരുന്നു ഇപ്പോൾ മക്കളുടെ ക്ലാസും കാര്യങ്ങളും ഓൺലൈൻ ആയിട്ട് വന്നപ്പോഴൊക്കെ ഫോണ് ഹാങ്ങ് ആകേ ഹീറ്റ് ആകേ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല നമുക്ക് നല്ല സുഖമമായിട്ട് തന്നെ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ക്യാമറ തന്നെയാണ് നമുക്ക് ഫോട്ടോസ് അത്രയും ക്ലാരിറ്റിയിലാണ് ഫോട്ടോസ് കിട്ടുന്നത് വളരെ നല്ലൊരു അഭിപ്രായമാണ് ഫോണിനെ കുറിച്ചുള്ളത്